നമ്മള് കേട്ടു വളർന്നതും കണ്ടു വളർന്നതുമായ ഭാഷയാണ് നമ്മുടെ സ്വന്തം മലയാള ഭാഷ അതായത് നമ്മുടെ മാതൃ ഭാഷ എൻ്റെ മാതൃ ഭാഷ മലയാളമാണ് അപ്പോൾ മലയാള ഭാഷ എന്നിൽ കുറെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മള് ചെറുപ്പം തൊട്ടെ കേട്ടുവളർന്ന ഭാഷ ആയത് കൊണ്ട് തന്നെ നമ്മള് എന്തൊക്കെ നല്ലതോ ചീത്തയോ പൊട്ടയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നോ അതിനൊക്കെ നമ്മുടെ മലയാള ഭാഷ ഒരു പങ്കാളിയാണ് ഇപ്പോൾ അമ്മയുടെ നല്ല വാക്കുകൾ കേട്ടാണ് നമ്മള് ചെറുപ്പത്തില് വളര അതുപോലെ അത്കഴിഞ്ഞ് അച്ഛൻറെ വാക്കുകള് അങ്ങനെ പിന്നെ ഗുരുക്കൻമാര് അങ്ങനെ എല്ലാ ആൾക്കാരും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ നമ്മള് ആദ്യം കേട്ടുവളരുന്നത് ഈ മലയാള ഭാഷയായിരിക്കും ഇപ്പോൾ ചെറുപ്പം തൊട്ട് നമുക്ക് കേട്ട് വളരുന്ന കാര്യങ്ങളാണ് നമക്ക് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഉടനീളം പ്രതിനിധികരിക്കണ്ടത് അങ്ങനെയാണങ്കിൽ ഇപ്പോൾ നമ്മുടെ മലയാള ഭാഷയില് ഇപ്പോ നമ്മള് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അതിലെ ആക്ഷൻ അങ്ങനെ ആണെങ്കിലും അതിൻ്റെ അതിൻ്റെതായ കുറെ എന്താ പറയുക ഗ്രാമർ കാര്യങ്ങള് അങ്ങനത്തെയാണെങ്കിലും കുറെയധികം കാര്യങ്ങള് നമുക്ക് മലയാള ഭാഷയിലൂടെ കിട്ടാനുണ്ട് നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ വ്യക്ത്തിത്ത്വത്തെ ഒക്കെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മാതൃ ഭാഷ എൻ്റെ മാതൃ ഭാഷയായ മലയാളം വളരെയധികം സ്വാതീനിച്ചിട്ടുണ്ട്